വരയ്ക്കാനുള്ള കഴിവ് എനിക്ക് ജന്മനാൽ കിട്ടിയതാണെങ്കിലും ചില ദിവസങ്ങളിൽ എനിക്കത് ചെയ്യാനും അതിനോട് ചില ദിവസങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാറില്ല അതുകൊണ്ടുതന്നെ അത് എന്നെ വളരെയധികം തളർത്താറ് തന്നെയാണ് പതിവ് ഞാനതിനോട് അതിനെയെങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നു വച്ചാൽ ഞാൻ അത് ദൈവം തന്നൊരു കഴിവില്ലെയെന്ന് വിചാരിച്ചിട്ട് ഞാനെന്തു ചെയ്യും എന്നു വച്ചാല് ഞാൻ

അത് പ്രകൃതിയിലേക്കിറങ്ങിച്ചെന്ന് ഒന്ന് അതിനോട് മനസ്സിലാക്കി അവിടത്തെ സാഹചര്യങ്ങൾ ഒത്തിണക്കി ഞാൻ കൂടുതൽ പ്രകൃതിയെ സ്നേഹിച്ച് അപ്പോൾത്തന്നെ എനിക്ക് മനസിലേക്ക് വരക്കാനുള്ള കഴിവുകൾ കൂടുതൽ വരുന്നതാണ് പിന്നെ വരക്കാനുള്ള പ്രചോദനം എങ്ങനെയാണു കണ്ടെത്താറ് എന്ന് ചോദിച്ചാൽ പ്രകൃതിയിലേക്കിറങ്ങിച്ചെന്ന് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് ദിനചര്യത്തിൽ മറ്റുജോലികളും ചിത്ര രചനകളും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാറ് എന്ന് ചോദിച്ചാൽ ഇതിനായിട്ട് പ്രത്യേക ഒരു സമയം കണ്ടെത്താറില്ല ഞാൻ തോന്നുന്ന സമയത്ത് മീൻസ് അതിനോട് താല്പര്യം തോന്നുന്ന സമയത്തതാണ് ഞാൻ കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി അത് ചെയ്യാറും അത് എന്നെ കൂടുതൽ സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷകരമായി ചെയ്യാറും പതിവ് വളരെ അധികം തിരക്കിട്ട ജീവിതത്തിലായാലും നമ്മൾ ഇതിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന അതൊരു തെറ്റുതന്നെയാണ്